കായിക മേഖലയിൽ പരിശീലിക്കുക അല്ലെങ്കിൽ കായികത്തിലേക്കു കടന്നുവല് വരിക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് പരിക്കുകളും അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കു തരണം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അനുഭവിക്കേണ്ടിവരും ഇപ്പോൾ ബോക്സിങ് എന്നുള്ള പറയുന്ന ഒരു കായികയിനം നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളങ്ങോട്ടിങ്ങോട്ട് ഇടിക്കുന്ന സമയത്ത് നമുക്കും അതുപോലെതന്നെ നമ്മുടെ അപ്പുറത്തു നിൽക്കുന്ന ആ ഒരു വ്യക്തിക്കും ഒരുപാട് പരിക്കുകൾ പറ്റാനുള്ള ആ അവസരങ്ങൾ വളരെയധികം കൂടുതലാണ് കൈ ഒടിയുക അല്ലെങ്കിൽ ചതവു സംഭവിക്കുക അല്ലെങ്കിൽ മുഖത്തു പരിക്കേൽക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് അതുപോലെതന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ഇടിവെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ മുഖം ഒറ്റയടിക്ക് നമ്മൾ തലചുറ്റിവീഴാനും അതുപോലെതന്നെ ശർദ്ദിക്കാനൊക്കെയുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ നമ്മൾ ഓടുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മൾ ഓടുന്ന ആ ഒരു സ്ഥലം നല്ലതല്ല അല്ലെങ്കിൽ ശരിയല്ലെങ്കിൽ നമ്മൾ വീഴാനായിട്ടുള്ള ചാൻസുകളൊക്കെ വളരെയധികം കൂടുതലാണ് പിന്നെ അതുപോലെതന്നെ ഒടിവുകൾ തെറ്റൽ ചതവുകൾ ഇതൊക്കെ സംഭവിക്കാനായിട്ടുള്ള അവസരങ്ങളൊക്കെ വളരേയധികം കൂടുതലാണ് അപ്പം അതിന് അതിൻറ്റേതായിട്ടുള്ള പരിചരണവും ഒക്കെ ആവശ്യമായിട്ടു വരും അപ്പം കേരളത്തിലെ കായിക മേഖലയിൽ കായിക മേഖലയെന്നു തന്നെ പറയുമ്പോൾ ഒരുപാട് മുറിവുകളും അപകടങ്ങളൊക്കെ പറ്റാനുള്ള അവസരം വളരെയധികം കൂടുതലാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ നമ്മുടെ കേരളത്തുണ്ട് അതുപോലെതന്നെ സാനം തെറ്റൽ ഒടിവുകൾ അതുപോലത്തന്നെ ഈ സായി സ്പോട്സ് കേരള സ്പോട്സ് ടീമിൻ്റെ അണ്ടറിൽ വരുന്ന കുട്ടികൾക്കു വേണ്ടിയിട്ട് അവർ പ്രത്യേക പരിശീലന സെൻറ്ററുകളുണ്ട് അപ്പം അവിടെ അവർക്കുവേണ്ട വേണ്ടിയിട്ടുള്ള പരിചരണവും അതുപോലെതന്നെ പരിക്കുകൾ വന്നു കഴിഞ്ഞ നോക്കാനുള്ള അസരങ്ങളൊക്കെ വളരേയധികം കൂടുതലായിട്ടുണ്ട് ഇവർക്ക് വളരേയധികം സ്പോട്സ് പരമായിട്ടുള്ള അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള വളരേയധികം പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അവർക്ക് അതിൻറ്റേതായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഫുഡ്ഡുകളും കാര്യങ്ങളും ഭക്ഷണപദാർത്ഥങ്ങളുമൊക്കെയാണ് അവർക്കവിടെ ഈ സായി സ്പോർട്സ് സെൻറ്റേഴ്സ് അവർക്ക് നൽകുക അപ്പോൾ ഈ പരിക്കുകളും അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ച് അവരെ ഹോസ്പിറ്റലിലേക്കു കൊണ്ടു പോകുകയും ഡോക്ടറുടെ അറിവോടുകൂടി അല്ലെങ്കിൽ നിർദ്ദേശത്തോടു കൂടി അവർക്കു വേണ്ട മരുന്നുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും പിന്നീട് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചുള്ള മുറി മുറികളേക്ക് മാറ്റുകയും ചെയുന്ന എന്തെങ്കിലും മുറിവാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ള കെട്ടിവെക്കലും അതുപോലെതന്നെ ചോര തുടച്ചുമാറ്റലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കലുണ്ട് ഇപ്പം കൈകൾക്കാണ് പറ്റിയിട്ടുള്ളത് ഉള്ളതെങ്കിൽ കയ്യിൽ മറ്റേ ബാൻഡേജ് ഇടുന്ന രീതി നമുക്കു കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഈ കാ കേരളത്തിലെ കായികമേലെ മേഖലയിൽ അല്ലെങ്കിൽ സ്പോട്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിക്കുകളും അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഈ കായിക മേഖലയിലുള്ള കുട്ടികൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തെങ്കിലും വളരെയധികം ഭാരമുള്ള എന്തെങ്കിലും ഉപകരണം ഇപ്പോൾ ബോൾ ഏറ്റം വന്നിട്ടിങ്ങനെ തലയിലൊക്കെ തട്ടുവാണെങ്കിൽ നമ്മൾ തലചുറ്റി വീഴാനൊക്കെയായിട്ടുള്ള അവസരങ്ങൾ വളരേയധികം കൂടുതലാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്ന ഈ ഡോക്ടർസിൻ്റെ അടുത്തു പോയിട്ട് അതിനനുസരിച്ചുള്ള പരിചരണവും മരുന്നുകളും കാര്യങ്ങളൊക്കെ നമുക്കു ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ കായിക മേഖലയിൽ ഇങ്ങനെ വരുന്ന അപകടങ്ങളും അതുപോലെതന്നെ ചതവുകളും ഒടിവുകളും അതുപോലെതന്നെ പരിക്കുകളും തടയലുകളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടു നമ്മുടെ ജില്ല ഇപ്പോഴും സജ്ജമാണ്